തിരുനക്കര അമ്പലത്തിനെക്കുറിച്ചാണ് പറയാനുള്ളത് തിരുനക്കര മഹാദേവനാണ് തിരുനക്കരയത് നമുക്ക് പകൽപ്പൂരം നടക്കുന്ന കോട്ടയം ജില്ലയിലെ അമ്പലമാണ് തിരുനക്കര അവിടുത്തെ പൂരമെന്നു പറഞ്ഞാൽ പകൽപ്പൂരമാണ് പകൽപ്പൂരത്തിന് നാനാ ദേശത്തു നിന്ന് ആൾക്കാർ വിദേശത്തു നിന്നുപോലും ആൾക്കാർ ഈ പകൽപ്പൂരം കാണാൻ അമ്പലത്തിൽ വരികയും അത് ഇരുപത് ആനകളോളം എഴുന്നള്ളിച്ച് അതിൻ്റെ ആ അവിടെ ആനകളെ നിർത്തിക്കൊണ്ടാണ് പകൽപ്പൂരം കൊണ്ടാടുന്നത് അതിൻ്റെ പാമ്പാടി രാജൻ്റെ എഴുന്നള്ളത്ത് കൊണ്ടുപോവുകയും പാമ്പാടി രാജനെ കാണുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിനാൾക്കാർ അവിടെ തടിച്ചു കൂടുകയും ഭയങ്കര ഒരു ഇതായിട്ടാണ് തിരുനക്കര മഹാദേവൻ്റെ പകൽപ്പൂരം അവിടെ കൊണ്ടാടുന്നത് അതൊരു വലിയൊരു അതായത് വിനോദ സഞ്ചാരം അത് ആകർഷണം എന്നപോലെ തന്നെയാണ് ഈ പകൽപ്പൂരം എല്ലാ അംഗങ്ങളും കണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് മഴക്കാല സമയത്ത് വെള്ളാച്ചാട്ടമെന്നു പറയുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് അതൊരു തീം പാർക്ക് പോലെയാണവിടെ ആൾക്കാരെ ആകർഷിക്കുന്നതിനു വേണ്ടി വളരെ പഞ്ചായത്തും സർക്കാരും ചേർന്ന് ഇത് കാണാനുള്ള ഒത്തിരി സൗകര്യങ്ങളവിടെ ഉണ്ടാക്കി അത് ആൾക്കാരെ ആകർഷിക്കുന്നതിനു വേണ്ട നടപടികൾ ഇവിടെ സ്വീകരിക്കുകയും ചെയ്തു അതാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ അതൊരു വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ പങ്കെടുത്ത് ആൾക്കാരൊത്തിരി സന്ദർശകരവിടെ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നു